ആ ഹലോ ഞാനൊരു കുറച്ച് ഫുഡ് ഐറ്റംസ് ഓർഡര് ചെയ്തായിരുന്നുവല്ലോ അതിതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ പേര് ജിബിൻ ജിബിൻ ബിനു ഞാനൊരു ഫുൾ അൽഫാം മന്തി പിന്നെ എന്താണ് പിന്നെ കുറച്ച് പിന്നെ ജ്യൂസ് ഓർഡര് ചെയ്തായിരുന്നു അത് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോള് അരമണിക്കൂർ മിച്ചമായി അര മണിക്കൂര് പത്തു മിനിറ്റെന്ന് പറഞ്ഞിട്ട് ഇപ്പോള് അര മണിക്കൂറായല്ലോ ഇല്ലല്ലല്ല നിങ്ങളുടെ എക്സ്ക്യൂസൊന്നും എനിക്ക് കേള്ക്കേണ്ട ഞാൻ വേറൊരു ഡെലിവറി ബോയിയുമായിട്ട് അതായത് മുമ്പ് ഓർഡര് ചെയ്ത സമയത്ത് കറക്ട് സമയത്തിനുള്ളില് തന്നെ അവരെത്തിച്ചു അവർക്കീ മഴയും ട്രാഫിക്കുമൊക്കെ പ്രശ്നമില്ലേ നിങ്ങള്ക്ക് മാത്രമേ വിഷയമുള്ളൂ ഇല്ലല്ലല്ല നിങ്ങള് അല്ലല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ചയല്ലേ അപ്പോള് അപ്പോള് ഞാനിത്രയും നേരം വെയ്റ്റും ചെയ്തു ഇത്ര നേരം വിശന്നിരിക്കുകയായിരുന്നു ഞാൻ ഇനി ഇപ്പോള് എന്താണെങ്കിലും നിങ്ങളുടെ ഇതിന്റെയകത്ത് പറയുന്നത് പത്ത് മിനിറ്റിനുള്ളില് എത്തിച്ചിട്ടില്ലെങ്കില് ആ ഫുഡ് പ്രൊഡക്ട് ഫ്രീയായിട്ട് തരുമെന്നല്ലേ അപ്പോള് ഇനി അങ്ങനെ വല്ലതും ഓഫര് വല്ലതുമുണ്ടാകുമോ അല്ലല്ലാ മാനേജറോടൊന്നും സംസാരിക്കേണ്ട അത് നിങ്ങള്ക്ക് തന്നെ കാണാമല്ലോ നിങ്ങള്ക്ക് റൂൾ അവിടെത്തന്നെ എഴുതിവെച്ചിട്ടുണ്ടല്ലോ പത്തു മിനിറ്റിനുള്ളില് ഡെലിവറി ചെയ്തിട്ടില്ലെങ്കില് ആ ഫുഡ് പ്രൊഡക്ട് ഫ്രീയായിട്ട് നമുക്ക് കസ്റ്റമറിന് തരേണ്ടതാണ് എത്ര മിനിറ്റിനുള്ളില് കൺഫേമാക്കും നിങ്ങളെത്ര മിനിറ്റിനുള്ളില് എത്തും അതു പറയൂ പത്ത് മിനിറ്റ് മാക്സിമം ഏ പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റെന്ന് പറഞ്ഞാല് പത്ത് മിനിറ്റ് ഓക്കെ ഓക്കെ നിങ്ങളുടെ പേരെന്തായിരുന്നു

ഓക്കെ അപ്പോള് തോമസ് പെട്ടെന്നെത്തിക്കൂ ഓക്കെ